ഇന്ത്യൻ സിനിമകളെക്കുറിച്ച് പറയാണെങ്കില് വളരെ നല്ല അഭിപ്രായമാണ് പക്ഷേ പണ്ടത്തെ സിനിമകളെ പോലെയുള്ള ഒരു ക്വാളിറ്റി എനിക്ക് ഇപ്പോഴത്തെ സിനിമകൾക്ക് ഒരു കഥ അത്രത്തോളം നമുക്ക് മനസ്സില് തങ്ങിനിക്കുന്ന കഥകള് ഇപ്പോള് കാണാറില്ല പിന്നെ ഏതൊക്കെ തരം സിനിമകളും സീരിയലുമാണ് കാണാറെന്നുവച്ചാല് സീരിയലുകളൊന്നും കാണാറില്ല സിനിമ കോമഡി സിനിമയാണിഷ്ടം സീരിയലുകളിലെപ്പോഴും കരച്ചിലും ഒക്കെയാണ് ഞങ്ങ എനിക്ക് സന്ത പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒന്നുമില്ല ചിരിക്കാനും വളരെ കാണാറില്ല മലയാള ഞങ്ങളുടെ പ്രിയപ്പെട്ട നടൻ നടി എന്നുവച്ചാല് മോഹൻലാലും ശോഭനേയുമാണ് സ് സിനിമാഗാനം ഏതൊക്കെയാണെന്നുവച്ചാല് മഞ്ഞണിക്കൊമ്പിൽ എന്നു പറഞ്ഞ ആ പാട്ട് വളരെ ഇഷ്ടമാണ് പിന്നെ തുമ്പീ വാ തുമ്പക്കുടത്തിൻ എന്നു പറഞ്ഞ സിനിമ ഇഷ്ടമാണ് ഗായകൻ യേശുദാസാണിഷ്ടം ചിത്രേം